ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെന്ന് തോന്ന് ഞങ്ങളെ പാടത്തെ കന്നാലികളെ ഒക്കെ അഴിച്ച് വിട്ട് തീറ്റ്ന്ന സമയത്ത് മണ്ണ് കൊണ്ട് ഞങ്ങൾ കണ് നമ്മളെ കാളകളെ ഉണ്ടാക്കും ഞങ്ങൾ മുയലൊണ്ടാക്കും തവളകൾ ഒക്കെ ഉണ്ടാക്കും അത് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെ മ്മാ പാടത്തൂടെ നടക്കുമ്പം തവളകളെ ഉണ്ടാക്കാൻ മണ്ണ് നല്ല കളിമണ്ണ് പോലെയൊള്ള കുഴഞ്ഞ മണ്ണ് കിട്ടും ആ മണ്ണ് ഉപയോഗിച്ച് ഞങ്ങളുടെ ഒരു അപ്പം ഞങ്ങളൊണ്ടാക്കുമ്പ ആദ്യമേ ഒന്നും ശരിയാവത്തില്ല ഞങ്ങളീർക്കിലിയെക്കെ വെച്ച് അയിനെ കന്നാലികളെ ഉണ്ടാക്കുവാണെങ്കി നമ്മള് കാളെ ഒണ്ടാക്കുവാണേ ഈര്ക്കിളിയെക്കെ വെച്ച് ഈര്ക്കിലീം മണ്ണൊക്കെ പിടിപ്പിച്ച് കൊമ്പും ഒക്കെ വെച്ച് നമ്മൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെ ഒത്തട്ടല്ല എന്നാൽ പോലും ഞങ്ങള്ടേതായ ഒരു ടൈം പാസിന് ഒരു സമയം പോണ്ടേ അതിന് വേണ്ടി കന്നാലികളോക്കെ തീറ്റാൻ വേണ്ടി ഞങ്ങടെ പോ ഒക്കെ പോകുമ്പഴാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ പാമ്പ് പാമ്പിനെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പാമ്പിനെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ അത് പാടത്തിങ്ങനെ വെക്കും മറ്റുള്ളെ ആൾക്കാര് ചിലപ്പം പേടിച്ച് പോകും നമ്മുടെ പാമ്പിനെ ഒണ്ടാക്കി വെച്ചേക്കുന്നെ കാണുമ്പോൾ നമ്മൾ കളിമണ്ണ് പോലെയൊള്ള മണ്ണെടുത്ത് കൊഴച്ച് അതിങ്ങനെ നമ്മടെ വാ കണ്ടത്തിൻ്റെ വരമ്പത്ത് വെച്ച് അതിനെ രണ്ടുന്ന് വരയൊക്കെ ഇട്ട് അതിന് ചുമ്മാ ഒരു കണ്ണൊക്കെ പോലെ നമ്മള് എന്തെങ്കിലൊക്കെ കാണിച്ച് വെച്ചൊരു മടലിന്റെ ഇതൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ അത് ആരെങ്കിലും നശിപ്പിക്കുമ്പം നമുക്ക് ബുദ്ധിമുട്ട് വരും കാരണം എന്താന്തെ നമ്മളന്ന് ചെറുപ്പം കാലത്താണല്ലോ ആരെങ്കിലും അത് ഒണ്ടാക്കി വെച്ചുമ്പോ അത് വന്ന് നശിപ്പിക്കും നമ്മളത്രേം നേരം പണിയെടുത്ത ഒരു പ്രതിമയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അത് അന്നത്തെ ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പ്രതിമകൾ അതൊക്കെ ഉള്ളൂ വലിയ കലാരൂപങ്ങളിലേക്കല്ലാ നമ്മള് പോയെ ചെറുപ്പത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ മണ്ണ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രതിമകളെ നമ്മൾ ഉണ്ടാക്കുന്നെ അല്ലാതെ പിന്നെ ഉണ്ടാക്ക്ന്നത് ആല് നമ്മള് കപ്പത്തണ്ട് കപ്പേടെ ഒരു കമ്പ് എടുത്ത് വെച്ച് അതേല് നമ്മള് തെലേ ശില്പങ്ങള് ആള് രൂപങ്ങളൊക്കെ കത്തി കൊണ്ടൊക്കെ ചെത്തി ഒക്കെ ഉണ്ടാക്കി നമ്മൾ വെക്കാറൊണ്ട് അത് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മളത് കുറച്ച് കഴിയ്മ്പത്തെന്നെ അത് അങ്ങ് ഉണങ്ങി പോവും ഉണങ്ങി പോവുമ്പ നമ്മടെ പ്രതിമകള്ടെ ആ ഷേപ്പൊക്കെ മാറിപ്പോകും അങ്ങനെ നമ്മൾ ചെയ്തട്ടൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ തന്നെ കപ്പളങ്ങ കപ്പളവൊക്കെ ഒണ്ടല്ലോ കപ്പളയത്തിനെക്കെ നമ്മള് ചുമ്മാ നമ്മൾ ബ്ലേഡ് കൊണ്ടെക്കെ വരഞ്ഞ് ഒരാൾ രൂപോക്കെ ഉണ്ടാക്കി വെക്കും അത് അങ്ങനെയൊള്ളെ ക ഹോബികളാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കീട്ടൊള്ള കാര്യങ്ങൾ അല്ലാ പിന്നെ നമ്മൾ തടികൊണ്ടങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പറ്റു ചെറുപ്പമായേൻ്റെ പേരിൽ സ്കൂളിൽ പഠിക്കുന്ന കാരർ പിന്നെ കാരണം പേപ്പറ് കൊണ്ട് നമ്മള് ആൾ രൂപങ്ങളൊക്കെ ഉണ്ടാക്കീട്ടുണ്ട് പേപ്പറ് കൊണ്ടാണെങ്കിൽ നമ്മൾ ചുരുട്ടി കയ്യും കാലുവൊക്കെ വെച്ച് നമ്മൾ ആനയെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ തുമ്പിക്കൈയ്യുള്ള ആനയെ ഉണ്ടാക്കുന്നു മുയലിനുണ്ടാക്കുന്നു പക്ഷികളെ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്തില് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഉള്ള ചെറുപ്പ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റീട്ടുള്ളു